ഹലോ ആൻസി എന്താ പരിപാടി ആണോ ഞാൻ എനിക്കിപ്പം നെറ്റ്ഫ്ലിക്സിലൊരു പുതിയ സീരീസ് കിട്ടി കാണാൻ റെക്കമെൻ്റ് ചെയ്യട്ടേ തീരാൻ വേണ്ടിയാണ് നമുക്കൊരുമിച്ച് കണ്ടാലോ പക്ഷെ ഇപ്പം വേറെയൊരു കാര്യമുണ്ട് പണ്ടത്തപ്പോലെ ടി വി ഒന്നും നമ്മളാരും കാണുന്നില്ല അതാണ് പണ്ടത്തെ ഹോളിഡേയ്സ് ഓർമ്മയുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ അതിനെപ്പറ്റി

അതുതന്നെ ഇപ്പം നമുക്ക് റിലീസാവുമ്പോൾ തന്നെ ഒ ടി ടി കിട്ടും പണ്ടു നമ്മൾ ഓണത്തിന് വേണ്ടി വെയ്റ്റ് ചെയ്തിരിക്കും പുതിയ സിനിമ കാണാൻ വീട്ടുകാർ എല്ലാ അതെ എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്നും പക്ഷെ ഇപ്പം നമ്മളെല്ലാവരും നമ്മളുടെ റൂമിലൊക്കെ ഇരുന്ന് ഫോണിലൊക്കെ കണ്ടു തുടങ്ങി അത് ആൻസിക്കെന്താ അതിനെപ്പറ്റി പറയാനുള്ളത് അത് തന്നെ ഇപ്പം അമ്മൂമ്മമാർ മാത്രം ടി വി കാണുന്നു അപ്പം കുറച്ചു നേരം അവരുടെ അടുത്തിരിക്കുന്ന അല്ലാതെ ഫാമിലി ടൈമ് നമ്മൾ ഒരുപാട് കൊടുക്കുന്നില്ല നമ്മൾ നമ്മളുടെ ഫോൺസിലും എല്ലാമായി രണ്ടും ഈക്വലി വേണം പക്ഷെ നമ്മളത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാൻ പഠിക്കണം പിന്നെ ശരി അപ്പം ഞാൻ എന്തായാലും അയച്ചു തരാം നമുക്കൊരുമിച്ച് കാണാം ശരി ബൈ